എന്റെ വീട്ടിലാണെങ്കിൽ ഒരു പാര്ട്ടി നടത്തിയായിരുന്നു അപ്പം ഒരുപാട് ഫുട്ടും ഫുഡ്സും കാര്യങ്ങളൊക്കെ വേസ്റ്റ് വേസ്റ്റ് ആയി അപ്പോൾ അത് മുന്സിപ്പാലിറ്റിയിലെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു അപ്പം നമുക്ക് വേറെ സ്ഥലത്ത് ഇപ്പം വീട്ടിലോ അങ്ങനെ അതിന് കളയാനായിട്ട് പറ്റത്തില്ല വേറെ വേറൊരു ഇടത്തും കൊണ്ട് പോയി ഇടാനും പറ്റത്തില്ല അപ്പോൾ മുന്സിപ്പാലിറ്റിയിലെ ആരെങ്കിലും അതിന് മുന്ഗണനയെടുത്ത് ഒന്ന് ആ വേസ്റ്റ് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു കാരണം ആ വേസ്റ്റ് നമുക്ക് ഇപ്പം പുറത്തിട്ട് കഴിഞ്ഞാൽ കുറെ അത് തെറ്റാണല്ലോ തെറ്റും പിന്നെ കുറെ കുറച്ച് ഹെല്ത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് അനുസരിച്ച് ആ ഒന്ന് എടുത്തുകൊണ്ട് പോ പോകുവായിരുന്നെങ്കില് വളരെ നല്ല ഒരു കാര്യമായിരുന്നു